ഹലോ ആ പറയൂ ആ ആ അതെയതെ പറഞ്ഞോളൂ ഇതാരാണ് സംസാരിക്കുന്നത്

ആ ഓക്കേ ഓക്കേ ഓക്കേ നിങ്ങൾ എത്തിയിട്ട് കുറച്ച് നേരമായോ ആ ഞങ്ങൾ ഏജൻസിയിൽ നിന്ന് ഇപ്പം കാർ പറഞ്ഞയയ്ക്കാം കേട്ടോ മാഡം അവിടെ ആ നമ്മൾ ഇന്നത്തെ പ്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ശംഖുമുഖത്ത് പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിയം കാണാൻ പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോവളത്ത് പോവും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ അതെ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചായയ്ക്കിപ്പോൾ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഫേമസ് ആയ സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാഡത്തിന് താൽപര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോവും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതിനൊക്കെ നമ്മൾ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് കൊടുത്തിട്ടുള്ളത് ഇത് ചായയിലിപ്പം

ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ വെള്ളയമ്പലത്തിൽ നിന്ന് നമുക്ക് ചായ കുടിക്കാം എന്നിട്ട് ബ്രേക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ആര്യാസ് സംസം അവിടുന്നൊക്കെ ആക്കാം വേറെ എന്തെങ്കിലും അറിയണം എന്നുണ്ടോ മാഡത്തിന് ആ നമ്മൾ പ്രധാനമായിട്ടിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ സദ്യയ്ക്കാണ് ഭയങ്കര ഫേമസായിട്ടുള്ളത് അപ്പം നമ്മൾ ഒരു തിരുവനന്തപുരം സ്പെഷ്യൽ സദ്യ ഒരുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മ്യൂസിയത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടൊരു സെമിനാറും ഒരു എക്സിബിഷനുമുണ്ട് നമ്മൾ അവിടേക്കും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ആ ഇപ്പോൾ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇനി മാഡത്തിന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ ആ സ്റ്റേ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് കോവളത്തിൻ്റെ അടുത്തൊരു ബീച്ച് റിസോർട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി മാഡത്തിന് വേണം എന്നുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റാം വേറെ മാറ്റണം എന്നുണ്ടോ ആ ഡബിൾ ബെഡ് കിട്ടും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾ ഒരാളല്ലേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ വേറെ ആൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞുകിട്ടും ഷെയർ ചെയ്യണം എന്ന് മാഡം പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാം ആ ഓക്കേ ഓക്കേ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞയയ്ക്കാം വേറെ ഒന്നും അറിയേണ്ടതില്ലല്ലോ ആ എന്നാൽ ആ എന്നാൽ മാഡം അവിടെ വെയിറ്റ് ചെയ്തോളൂ ഇപ്പം ആൾ വരും കേട്ടോ ശരി ആ